മുഴുത്ത ചരലും നദീതടത്തിൽ നിന്നുള്ള ഉരുളൻ കല്ലുകളും എങ്ങനെ കാലാവസ്തുക്കളായി ഉപയോഗപെടുത്താം എന്നുള്ള ചോദ്യത്തിന് എനിക്ക് കാര്യമായ രീതിയിൽ ഉത്തരങ്ങളൊന്നും അറിയില്ല എന്നിരുന്നാൽ പോലും എന്റെ ചിന്തയിൽ മുഴുത്ത കല്ലുകളൊക്കെ നമുക്ക് പെയിൻറുകൾ അടിച്ച് നിറങ്ങൾ ചാർത്തി കലാരൂപങ്ങളെ കലാവസ്തുക്കളായി ഉപയോഗിക്കാവുന്നതാണ് പല പല നിറങ്ങൾ ചാർത്തി അവയെ ഭംഗിയുള്ളതാക്കി അവ നമുക്ക് കലാരൂപങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് മാലയായിട്ടും ഒക്കെ ശരീരത്തിന് കല്ലുകളെ നമുക്ക് അണിയാവുന്നതാണ് ചരലുകളിൽ നിന്നും എടുക്കുന്ന പൊടിയിലൊക്കെ നിന്ന് കളിക്കുന്ന കലാരൂപങ്ങളും നമുക്ക് ചുറ്റും സജീവമാണ് പണ്ടുകാലങ്ങളിൽ ഇവയെല്ലാം കലകളെ കാലാവസ്തുക്കളായി ഉപയോഗിച്ചിരുന്നു പക്ഷേ ഈ കാലത്ത് അങ്ങനെ കാണാറില്ല എന്നിരുന്നാൽ പോലും പണ്ടുകാലത്തെ ജനങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നു മുഴുത്ത കല്ല് ഒക്കെ നദീതടത്തിൽ നിന്നെടുത്ത് അവ കഴുകി വൃത്തിയാക്കി ഓരോ കലാരൂപത്തിൽ പണ്ടുള്ളവർ ഉൾപ്പെടുത്തിയിരുന്നു അതൊക്കെ ഓരോന്നിന്റെയും പൈതൃകങ്ങളും പ്രതീകങ്ങളും ആയിരുന്നു പ്രതീതിയിലുള്ള പല ഷേപ്പിലുള്ള കല്ലുകളും പല നിറത്തിലുള്ള കല്ലുകളും അവർ ഇതിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നു വളരെയധികം കൗതുകം ഉണർത്തുന്നതായിരുന്നു പണ്ട് കാലത്തെ മനുഷ്യരുടെ കലാരൂപങ്ങളും രീതികളും ഒക്കെ പക്ഷേ ഈ കാലഘട്ടത്തിൽ അവയെല്ലാം കൈമാറി കൈമാറി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്